ഞാൻ ജീവിക്കുന്ന കോട്ടയം ജില്ലയില് ഞങ്ങളുടെ പഞ്ചായത്തില് പല വാർഡുകളായിട്ട് തിരഞ്ഞെടു വാർഡുകളിലെ വാർഡ് മെംബർമാരിൽ നിന്നാണ് ഇപ്പോഴത്തെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റുമൊക്കെയുള്ളത് വാർഡ് തലത്തില് നല്ല പ്രവർത്തനങ്ങളാണ് വാർഡ് മെംബേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ വാർഡിലെ ആവശ്യങ്ങള് കണ്ടറിഞ്ഞ് അവർക്ക് പഞ്ചായത്തിൽ നിന്നു ലഭിക്കാൻ ചാൻസുള്ള എല്ലാ സഹകരണങ്ങളും അവിടത്തെ ജനത്തിന് നേടിക്കൊടുക്കുന്നു അതുപോലെതന്നെ വില്ലേജ് ഇവിടെ ഒരു വില്ലേജോഫീസുണ്ട് വില്ലേജോഫീസിൽ നിന്നാണെങ്കിലും വേണ്ട സഹായം ജനങ്ങൾക്ക് ലഭിച്ചു വരുന്നു വില്ലേജ് ഓഫീസര് അതുപോലെതന്നെ താല് ചങ്ങനാശ്ശേരി ഉൾപ്പെട്ടിട്ടുള്ള മുനിസിപ്പാലിറ്റി ഉണ്ട് ചങ്ങനാശ്ശേരിയിലെ മുനിസിപ്പാലിറ്റിയില് നഗരസഭയുണ്ട് നഗരസഭയുടെ അടിയിലാണ് പലപ്പോഴും പല പ്രവർത്തനങ്ങളും നടന്നുവരുന്നത് ആ പരിസരങ്ങള് വൃത്തിയായി സൂക്ഷിക്കുന്നതിനും കുടിവെള്ളം ലഭിക്കുന്നതിനുമൊക്കെ അവര് പ്രവർത്തിച്ചു വരുന്നു കോട്ടയത്ത് ആണ് ജില്ലാ കളക്ടറുടെ ആസ്ഥാനം അതുപോലെതന്നെ ഈ കേരളത്തില് ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട് കോട്ടയത്ത് പ്രതിപക്ഷത്തിൻ്റെ കേര് കുറിച്ചിയില് ജോബ് മൈക്കിളാണ് ഇവിടത്തെ എം എൽ എ പ്രതിപ ഭരണപക്ഷത്തുള്ള പാർട്ടിയിലാണ് അദ്ദേഹം ഈ എം എൽ എ വഴി ധാരാളം നല്ല പദ്ധതികളും കാര്യങ്ങളും ഈ പഞ്ചായത്തില് ചെയ്യുവാനായിട്ട് ഇവിടത്തെ പഞ്ചായത്തിലെ ഭരണം നടത്തുന്നവർക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേണ്ഗ്ര കോൺഗ്രസ്സും സി പി എമ്മും രണ്ട് പ്പൊ ഈ രണ്ട് പാർട്ടികളാണ് ഇപ്പോള് കേരളത്തിലുള്ളത് മൂന്നാമതായിട്ട് ബി ജെ പിയുമുണ്ട് കേരൾ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാറി മാറിയാണ് മിക്കവാറും ഇവിടെ ഈ സംസ്ഥാനത്ത് ഭരണം നടത്തി വരുന്നത് ഓരോ ഓരോന്നിന്നും വിവിധ മന്ത്രിമാരുണ്ട് വിദ്യാഭ്യാസത്തിനും ആതുരസേവനത്തിനും അതുപോലെതന്നെ നിയമം നിയമവ്യവസ്ഥയ്ക്കും എല്ലാം വിവിധ വകുപ്പ് മന്ത്രിമാരുണ്ട് ജലസേചനത്തിന് ഉണ്ട് പല മന്ത്രിമാർക്കും അവരെ അഡ്വൈസ് ചെയ്യുന്നതിനായിട്ട് അവരുടെ തൊട്ടുതാഴെയുള്ള മറ്റൊരു സെക്ഷൻ ആയിട്ട് വില്ലേജുകള് പ്രവർത്തിക്കുന്നു ജില്ലാ കളക്ടറിൽ നിന്നും വില്ലേജ് വഴി പല കാര്യങ്ങളും നടത്തപ്പെടുന്നു വില്ലേജിൻ്റെ താഴെയായിട്ടാണ് പഞ്ചായത്ത് വരുന്നത് പഞ്ചായത്തിലെ മെംബർമാരും ഒക്കെകൂടിയാണ് അവരുവഴിയാണ് ഏറ്റവും താഴയിലേക്ക് ഓരോ പ്രവർത്തനങ്ങളും വരുന്നത് പലപ്പോഴും മു ഏറ്റവും മുകളിലുള്ള ഏരിയയില് അവര് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും ഇങ്ങ് താഴെ എത്താറില്ല വില്ലേജിലെയോ അല്ലെങ്കിൽ പഞ്ചായത്തിൻറ്റേയോ വീഴ്ചകള് മൂലം പല പദ്ധതികളും മുടങ്ങിപ്പോകുന്നുണ്ട് അതിന് പലപ്പോഴും പലതരത്തിലുള്ള ഭരണ രീതികളോട് എതിർപ്പ് ജനങ്ങൾ കാണിക്കാറുമുണ്ട് കാര്യക്ഷമമായ പ്രവർത്തനം വില്ലേജിൽനിന്നും പഞ്ചായത്തിൽ നിന്നും ഉണ്ടാകുകയാണെങ്കില് നമ്മളുടെ ദേശം വളരെ നല്ല രീതിയില് മുമ്പോട്ട് പോയേനെ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ടുള്ള ജ്ഞാനമുള്ള നേതാക്കളെ നമ്മൾക്ക് ലഭിക്കണമെന്ന് ആശിക്കുന്നു